ബൈക്കിങ്ങ് ഞാൻ ആരംഭിച്ചതിൻ്റെ കാരണം ഇനി പെട്ടെന്ന് എവിടെ എങ്കിലുമൊന്ന് പോകണമെന്ന് വിചാരിക്കുക യാത്രയുടെ അസൗകര്യങ്ങൾ വരുമ്പോഴേ ബസ്സ് കിട്ടാല്ലേ യാത്രയ്ക്കുള്ള അസസൗകര്യങ്ങളുണ്ടാകുമ്പോൾ ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് പഠിച്ചു കഴിഞ്ഞ് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ കാര്യം സാധിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കും അത് സമയത്തിൻ്റേൽ സമയത്തിൻ്റെ കുറവ് സമയം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വിദേശയാത്രക്ക് അല്ല എന്തെങ്കിലും ബസ്സ് കാത്ത് അല്ലെങ്കിൽ വണ്ടി കാത്തു നിന്ന് അല്ലെങ്കിൽ ടാസ്ക്സി വിളിച്ചൊക്കെ പോവുമ്പഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള സമയത്തിൻ്റെ പരിമിതികളുണ്ട് നമ്മൾ ബൈക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി കാര്യം സാധിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് അതിനോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പോകേണ്ട യാത്രയ്ക്കുള്ള ചെറിയ വഴികളൊക്കെ ആണെങ്കിൽ പോലും അതിലൂടെ കടന്ന് കയറി പോവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റുള്ള വാഹനങ്ങളെ പോകുന്നതിൻ്റെ അത്രയും വയ്യാ സൗകര്യ കുറവുള്ള വഴികളിലൊക്കെ ആണെങ്കിലും ബൈക്ക് കൊണ്ടു പോകാനായിട്ട് സാധിക്കും അത് ഓരോ ദിവസം ചെല്ലുമ്പോഴത്തേക്കും നമ്മൾക്ക് പെട്ടെന്ന് അതൊരു ഹരമായിട്ടു മാറുകയാണ് ഒരു സന്തോഷവും സംതൃപ്തി ആ യാത്രയിൽ നമുക്ക് കിട്ടുന്നത് കാരണം നമുക്ക് ലക്ഷ്യ സ്ഥാനത്തിൽ എത്തുവാനായിട്ട് ബൈക്ക് ആണെങ്കിൽ അത് ഉപകരിക്കുമെന്നുള്ളതാണ് ഇപ്പം ഒത്തിരി ട്രാഫിക്ക് നിറഞ്ഞ വഴികളിലൊക്കെ ആണെങ്കിൽ അതിന് ഇട വഴിയൊക്കെ ഒന്ന് കേറിപ്പോട്ടുന്നെ പോവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അതിനെ ബൈക്കിനെ കൂടുതൽ ആഗ്രഹിക്കുന്നതും ബൈക്ക് യാത്ര ആഗ്രഹിക്കുന്നു ബൈക്ക് ഇഷ്ട്ടപ്പെടുവാനായിട്ടുള്ള കാരണം എന്ത് പെട്ടെന്നുള്ള യാത്രാ സൗകര്യമാണ് നമ്മുടെ സമയക്കുറവാണ് നമ്മുടെ സമയം കുറവ് നമുക്ക് ലാഭമുണ്ട് എന്നുള്ള ആ ഉത്തമ ബോദ്ധ്യമുള്ളത് പോലെ തന്നെ ചുലവുകൾ കുറവാണ് മറ്റുള്ള വാഹനങ്ങളെക്കാളുമൊക്കെ ബൈക്കിന് ചിലവ് കുറവുള്ളത് കൊണ്ടും നമുക്ക് എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യമുണ്ട് ഏതാണ്ടൊരൂ നൂറു രൂപ മുടക്കിയാൽ നമുക്ക് ഒരു പത്ത് വളരെ കിലോമീറ്ററോളം യാത്ര ചെയ്യുവാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പേർക്ക് പെട്ടെന്ന് പോയി വരേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യ സ്ഥാനത്തിൽ എത്തിച്ചേരുവാൻ ഈ ബൈക്കിനെ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് എനിക്ക് പറ്റുമെന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ബൈക്കിനെ ആശ്രയിക്കുവാനും ബൈക്കിലൂടെ ബൈക്ക് കൊണ്ടുള്ള യാത്രയിൽ എപ്പോഴും ഞാനാ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും ഇതു തന്നെയാണ് പെട്ടെന്നുള്ള ആ സമയത്തിൻ്റെ ലാഭ്യത പെട്ടെന്ന് എത്തിച്ചേരുവനായിട്ടൊക്കെ സാധിക്കുന്നു എന്നത് കൊണ്ടാണ്